ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കളരിപ്പയറ്റില് എനിക്ക് നല്ല രീതിയില് കളരിപ്പയറ്റ് നടത്തി ഒരു വിജയവും കാര്യങ്ങളുമൊക്കെ സാധിക്കണമെന്നുണ്ടായിരുന്നു അതാണെൻ്റെ ഒരഭിലാഷമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഇന്ത്യയില് തന്നെ ഏറ്റവും നല്ലൊരു കളരി മാസ്റ്റർ അങ്ങനൊക്കെയാണ് എനിക്ക് അറിയപ്പെടണന്ന് ഭയങ്കരാഗ്രഹള്ളത് അപ്പോൾ എനിക്കിങ്ങനെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി മോദിജിയുടെ കയ്യിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക നമുക്ക് മെഡലും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ അതേപോലെ എനിക്കതൊക്കെ കിട്ടണമെന്ന് ഭയങ്കരാഗ്രഹാണ് എൻറ്റൊര് ജീവിതാഭിലാഷവും അത് തന്നെയാണ് അപ്പോൾ നല്ല രീതിയിലത് കാഴ്ച വെക്കാൻ വേണ്ടിയിട്ട് ഞാന് ശ്രമിക്കും അന്ന് നമ്മള് ശ്രമിച്ചാല് മാത്രമെ നമുക്കങ്ങണത്തെ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളു അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പളും പരിശ്രമിച്ചോണ്ടിരിക്കുകയാണ് അതാണെൻ്റെ ഒരു ജീവിതാഭിലാഷമെന്ന് വേണെങ്കില് പറയാം